കേരളത്തിൽ ബാങ്കിംഗ് മേഖലകളോളം തന്നെ തുല്യമായി നിൽക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ് മേഖല പ്രതേകിച്ച് ധാരാളം എൻ ആർ ഐസ് കേരളത്തിൽ നിന്നാണ് ഉള്ളത് അപ്പം നമുക്ക് പുറം ദേശങ്ങളിൽ ചെന്ന് അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസ ഒരു ബാങ്കിലിട്ടാൽ എന്തു മാത്രം കിട്ടുമോ അതിൽ കൂടുതൽ ആദായം കിട്ടത്തക്ക വണ്ണം ഇന്ന് ഇൻഷുറൻസ് മേഖല വളർന്നു കഴിഞ്ഞു ഇൻഷുറൻസ് മേഖലയാണെങ്കിൽ അതിനകത്ത് രണ്ട് ഒന്നുണ്ട് ഒന്ന് അവർക്ക് ആവശ്യമുള്ള ഗ്രോത്ത് ഉണ്ടാകും അവരുടെ ഫണ്ടിന് അതോടൊപ്പം തന്നെ ലൈഫും കൂടി കവേർ ചെയ്താണ് പോകുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നു അവരുടെ കാലം കഴിഞ്ഞും അവരെ കുടുംബത്തിനെ സംരക്ഷിക്കും മുമ്പ് ലൈഫ് ഇൻഷുറൻസ് എന്നു പറഞ്ഞതിനെക്കൊണ്ട് മരിച്ചാൽ മാത്രം കാശ് കിട്ടുന്ന രീതിയിലായിരുന്നു ലൈഫ് ഇൻഷുറൻസ് മേഖല ഇന്നതെല്ലാം മാറി ഇവിടുത്തെ ഒരുപാട് വികസിത ക്രിയാത്മക പങ്കാളിത്തങ്ങളുമെല്ലാം അതുപോലെ തന്നെ വ്യാപാരത്തിനും നാടിൻ്റെ പുരോഗതിക്ക് അണക്കെട്ടിനും എല്ലാ സംരഭങ്ങൾക്കും ഇന്ന് ഇൻഷുറൻസ് മേഖലകൾ വായ്പ കൊടുക്കുന്ന സംവിധാനം വരെ ഉണ്ട് നമ്മളുടെ അവിടെ നിന്ന് പ്രതേകിച്ച് നമ്മളെ ഇറിഗേഷൻ ഫണ്ട് ഇറിഗേഷനും നമ്മളെ ജല വൈദ്യുതി പദ്ധതികൾ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കുടിവെള്ള പദ്ധതികൾ ഇതിനെല്ലാം ഇൻഷുറൻസ് കമ്പനി തന്നെ ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതിലിപ്പോഴും പഴയ രീതി കഴിഞ്ഞാൽ ഫാറങ്ങൾ എല്ലാം പൂരിപ്പിച്ച് കൊടുക്കുന്ന ഇലക്ട്രോണിക്സ് ഓൺലൈൻ പേയ്മെൻ്റ് വഴി നമ്മളുടെ അത് പോളിസികളൊക്കെ എടുക്കത്തക്ക വണ്ണം ഉള്ള രീതിയിൽ അതുപോലെ തന്നെ ബാങ്കിങ്ങിലാണെങ്കിലും ശരി നമുക്കിപ്പോൾ ബാങ്കിൽ ചെല്ലേണ്ട ആവിശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ വഴി തന്നെ നമുക്ക് ബാങ്കിംഗ് നടത്താം അതുകഴിഞ്ഞിട്ട് പിന്നെ ഒരു പാസ്ബുക്ക് കൊണ്ടു നടക്കേണ്ട ആവിശ്യമില്ല ചെക്ക്ബുക്ക് കൊണ്ടു നടക്കേണ്ട ആവിശ്യമില്ല അതുപോലെ ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാത്തിനും നമ്മുടെ സൗകര്യം ഇപ്പം ബാങ്കിംഗിൽ അങ്ങനെ ഉണ്ട് ഇൻഷുറൻസ് മേഖല അതുപോലെ തന്നെ നമ്മൾ ഫോം പൂരിപ്പിച്ച് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ പേയ്പേഴ്സിൻ്റെയൊന്നും ആവിശ്യമില്ല അല്ലാതെ തന്നെ കൊടുക്കാനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ധാരാളമുണ്ട്

അതുകൊണ്ട് വരുമാനം കുറയുന്ന അനുസരിച്ച് ഉള്ള വരുമാനത്തിൽ നിന്നും കുറച്ച് ബാക്കി വച്ച് ബാങ്കിംഗ് മേഖലയിലോ ഇൻഷുറൻസ് മേഖലയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ കഴിയും അതിന് ഇലക്ട്രോണിക്സ് ക്ലിയറിങ്ങ് സേവനം വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം